സമൂഹമാധ്യമത്തിൽ ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ അല്ലങ്കിൽ എനിക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റേതും എൻ്റെ കുട്ടികളുടേതും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും യാത്രകൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിന് ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് മറ്റുള്ളവരെ കാണുമ്പോൾ അതിന്നെ നിന്ന് കിട്ടുന്ന പ്രതികരണം ഞാനുൾക്കൊള്ളാറുണ്ട് അവരതിൽ നിന്ന് കമൻ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അത് ഞാൻ ഉൾകൊണ്ടതിനെ ഏറ്റെടുക്കുകയും ചെയ്യും മറ്റുള്ളവർ എൻ്റെ സന്തോഷത്തിൽ എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കാനുള്ളൊരു മാധ്യമം കൂടെ ആയിട്ട് ഞാൻ സമൂഹ മാധ്യമത്തെ ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്